ആ പറഞ്ഞോളൂ മാഡം ആ ഓക്കെ മാഡം പറയൂ ആ ഓക്കെ മാഡം മാഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണല്ലേ ആ മാഡം എടയ്ക്കൽ കേവിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ

ആ മാഡം എടയ്ക്കൽ കേവ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക ആദ്യം ആദ്യമേ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അതായത് പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടേതായ ലിപികളും കാര്യങ്ങളും ഒക്കെ എഴുതിയും ഇതാക്കി ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കേവ് ആണ് കല്ലിൽ പാറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് വണ്ടിയിൽ പോക്ക് നടക്കില്ല ട്രക്കിംഗ് നടന്ന് തന്നെ കയറേണ്ടി വരും അപ്പം മാഡം പത്താം തീയതി അല്ലേ പറഞ്ഞത് ആ ഓക്കെ മാഡം ഇങ്ങോട്ട് വരുമോ അതോ നമ്മൾ എന്തെങ്കിലും ക്യാബോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ മാഡം എത്ര മെമ്പേഴ്സ് ഉണ്ട് ആ ആറ് പേരുണ്ടല്ലേ ആ ഓക്കെ മാഡം അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പിക്ക് ചെയ്യണോ അതോ മാഡം ഇങ്ങോട്ട് എത്തിക്കോളുമോ ആ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നോളാം മാഡം വരുന്നതിന് ഒരു അരമണിക്കൂർ കോഴിക്കോട് എത്തുന്നതിന് മുമ്പേ നമ്മളെ ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വണ്ടി കൊണ്ട് വന്ന് വെയിറ്റ് ചെയ്തോളാം ഒരു ടു ഹവറിന് മുമ്പ് വിളിച്ചാൽ മതി പിന്നെ വയനാട് അമ്പലവില്ലെന്ന് പറയുന്ന സ്ഥലത്താണ് മാഡം എടയ്ക്കൽ കേവ് സ്റ്റേ സ്ഥലം അവിടെ സ്റ്റേയോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ആ ഓക്കെ മാഡം കേവിൻ്റെ അവിടെത്തന്നെ നമുക്ക് ഒരുപാട് ഇതുണ്ട് ഷെയർ റൂം ഷെയർ സ്റ്റേകളും എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് ആ പിന്നെ ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ അവർ ര് തന്നെ പ്രൊ അവിടെത്തന്നെ ഉണ്ടാവും മാഡം അതിനെ പറ്റിയൊന്നും വറി ചെയ്യേണ്ട മാഡം പത്താം തീയതി അല്ലേ പറഞ്ഞത് ആ ഓക്കെ ആറ് പേർ അപ്പം ഞങ്ങൾ ക്യാബും കൊണ്ട് വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ട് വിടാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അധികം പ്രായം ആയവരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും മുകളിലേക്കൊക്കെ കയറി പോവണമെങ്കിൽ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറ്റം തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് മാഡം ചെയ്യേണ്ടി വരും ഓക്കെ മാഡം അപ്പോൾ മാഡം വരുന്നതിനൊരു രണ്ട് ദിവസം ച്ചെ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മളെ ഒന്നുകൂടെ വിളിച്ച് ഓർമിപ്പിക്കണം എന്നിട്ട് എത്തുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വിളിച്ചെങ്കിൽ ക്യാബ് അവിടെ അറേഞ്ച് ചെയ്തുതരാം കേട്ടോ മാഡം ഓക്കെ മാഡം വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡം ഈ നമ്പറിൽ വിളിച്ചാൽ മതി